ഹലോ

കേൾക്കാം കേൾക്കാം അയ്യോ എന്തു പറ്റി ഫുഡ്ഡിന് അയ്യോ അത് എന്താന്ന് വെച്ച ഇന്ന് ഇച്ചിരി ലെയ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ് പെട്ടന്ന് ദിർദിക്ക് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും സാമ്പാറിനു അതു തന്നെ കുറച്ച് പരിപ്പ് കുറവായിരുന്നു അപ്പതിൻ്റെ ഒരു കുറവ് കാണും അതായിരിക്കും കേട്ടോ സാമ്പാറിനു നമ്മൾ ഷ് കഷ്ണത്തിന് സാമ്പാറും പരിപ്പും സാമ്പാറിന് നല്ല പിന്നെ പ്രതേകിച്ച് ഒരു സ്പെഷ്യൽ പരിപ്പുണ്ട് അത് ഇട്ട് ഒന്നിച്ചാണ് കുക്കറിൽ ഇട്ട് അടിച്ചെടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടി മല്ലി പൊടി നമ്മൾ ആദ്യം ചൂടാക്കുക അതിന്റ്റെ കൂടെ സാമ്പാർ പൊടി യൂസ് ചെയ്യും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയുടെ ഇച്ചിരി ഇത് ഉണ്ടായിരുന്നു ആ ഇനി ഇനി നമുക്കിനി ശ്രദ്ധിച്ചു ചെയ്തോളാം സാറ് ഈ പ്രശ്നങ്ങൾ ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇനി തീർച്ചയായും നമ്മുടെ ആ ഇതിൻ്റെ പൊടി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് സാമ്പാർ പൌഡർ കൂടെ ഉപയോഗിക്കാറുണ്ട് അത് ഇപ്രാവശ്യം കിട്ടിയില്ല നമ്മുടെ ഇതിനകത്ത് കുറച്ച് കടുകുവറുത്തപ്പോഴെ കുറച്ച് ഇതിൻറ്റെ കുറവുണ്ടായിരുന്നു എണ്ണയുടെ ഒക്കെ കുറവൂടെ ഉണ്ടായിരുന്നു എല്ലാമൊന്ന് ഇപ്രാവശ്യം ഇന്നത്തെ ദിവസം എല്ലാ നമ്മളത് രണ്ട് ദിവസം മുമ്പത്തെ തൈരാണ് എടുത്തത് അതുകൊണ്ടാണ് പുളി അൽപ്പം കൂടുതൽ ആയി പോയത് സാധാരണ ഞങ്ങൾ തലേദിവസത്തേക്കുളളത് തലേദിവസം എടുക്കുന്നത് അതിന് രണ്ട് ദിവസം മുമ്പത്തെ ഒരു ബാലൻസ് വന്നതും കൂടി എടുത്തുപയോഗിച്ചത് കൊണ്ടാണങ്ങനെ പുളി കൂടി പോയത് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും അതെയതെ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നല്ല സാമ്പാറും മോരും ഒക്കെ ആയിരിക്കും പുളിശ്ശേരിയൊക്കെ നല്ലതായിരിക്കും ഇപ്രാവശ്യത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും